ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സാരിയാണ് ഓഡറെയ്തത് നല്ല സാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കല്യാണത്തിന് ഇട്ടിട്ടു പോകാൻ പറ്റിയ നല്ലൊരു സാരി ആയിരുന്നു പട്ടുസാരി അതിന് ഒരു റെഡ്ഡൂം ഗ്രീനും മിക്സെയ്തിട്ടുള്ളൊരു കളർ നല്ല കളറായിരുന്നു നല്ല ചിലർ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്തത് നല്ല നല്ലൊരു മെറ്റീരിയൽ തന്നെയായിരുന്നു ഞാൻ എന്നിട്ട് കല്യാണത്തിന് ഇട്ടിട്ടു പോയി എല്ലാവരും ചോദിച്ചു എവിടുന്നാണ് എടുത്തത് എവിടുന്നാണ് എടുത്തത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ഓൺലൈനായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡെലിവറി ചെയ്ത ചേട്ടനും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ പറഞ്ഞ ടൈമിന് തന്നെ എനിക്ക് അവർ കൊണ്ട് വന്നു തന്നു ഞാൻ ലേറ്റ് ആവും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ കറക്റ്റ് സമയത്തിനുതന്നെ കൊണ്ടുതന്നു നല്ലൊരു മെറ്റീരിയൽ തന്നെ ആയിരുന്നു അത്